ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ന് വെച്ചാല് നോർമൽ ബോട്ടാണ് കോനോൾ എന്ന് പറഞ്ഞിരുന്നാല് അപ്പം നമ്മള് അതിന് യൂസ് ചെയ്യുന്നത് നമുക്ക് മോട്ടറിൽ തന്നെ പോകുന്നത് കൊണ്ട് അതിന് പ്രശ്നമില്ല അപ്പം നമുക്ക് സമയങ്ങള് നിർത്താം തുഴയുന്നതാവുമ്പോൾ പ്രശ്നമെന്നുവെച്ചിരുന്നാല് എക്സ്ട്രാ ഒരു അധ്വാനം കൂടെ വരുന്നുണ്ട് തൊഴയണം അങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ട് അല്ലാണ്ട് വലിയ വലിയ ബോട്ടുകളിൽ പോവുന്നേ കാലും ചെറിയ ചെറിയ ബോട്ടുകളിൽ പോയി കഴിഞ്ഞാല് അത്യാവശ്യം സാധനം കിട്ടും നമ്മള് ചില ടൈമുകളില് കപ്പൽ ഒക്കെ പോകാറുണ്ട് കപ്പൽ ഒക്കെ പോയിട്ട് അത്യാവശ്യം ചെറിയൊരു കപ്പല് വലിയ എന്താ പറയുക കപ്പലല്ല ചെറിയൊരു കപ്പല് അപ്പം അങ്ങനത്തെ ഒക്കെ പോകുന്നതെന്നുവെച്ചാല് നമ്മള് പോകുമ്പോൾ ബൾക്ക് ആയിട്ട് കുറച്ച് കുറെ ആൾക്കാരുണ്ടാവും ബൾക്ക് ആയിട്ട് ക്വാണ്ടിറ്റി നമുക്ക് കുറച്ച് ഉൾക്കടലിലേക്കു പോയിട്ടാണ് നമ്മൾ എടുക്കാറ് ഇപ്പം നമ്മള് സാധാ ബോട്ടിൽ ഒക്കെ പോകുവാണെങ്കിൽ മോട്ടർ ഒക്കെ വെച്ചാൽ ബോട്ടിലൊക്കെ ആണെങ്കില് അത്യാവശ്യം ദൂരം പോയിട്ട് നമുക്ക് തിരമാല വന്നാല് തിരിച്ചടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബോട്ട് ആയിരിക്കും അങ്ങനെ അതിലൊരു അഞ്ചാറു പേരൊക്കെ പോകാൻ പറ്റുള്ളൂ അങ്ങനെയുള്ള വ്യത്യാസമുണ്ട് പിന്നെ തുഴയുന്ന ബോട്ട് ആവുമ്പം ആൾക്കാർക്ക് എണ്ണം കൂടുതലാണെങ്കിൽ പോലും നമുക്ക് എന്ന് വച്ചിരുന്നാൽ തുഴയുന്ന ഒരു എനർജികുടെ എക്സ്ട്രാ ആവശ്യമുണ്ട് അങ്ങനെ രണ്ടിനും കൂടെ വ്യത്യാസം എന്ന് പറഞ്ഞിരുന്നാല്